ഒന്ന് മൂന്ന് ആയിരത്തിത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് പതിനഞ്ച് പത്ത് രണ്ടായിരത്തി ഒന്ന് ഇരുപത്തി രണ്ട് പന്ത്രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മുപ്പത്തൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്